ഗ്രാമത്തിലെയും നഗരത്തിലെയും സ്കൂളുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം എന്താ വച്ചാൽ ഗ്രാമ പ്രദേശങ്ങളിലെ സ്കൂളുകൾ പച്ചപ്പും ഹരിതാഭവുമൊക്കെ നിറഞ്ഞ സ്കൂളാണ് നിറഞ്ഞ് കിടക്കുന്നൊരു സ്ഥലത്ത് ഒരു സ്കൂളായിരിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക നല്ല സൗണ്ടുകൾ അങ്ങനെയൊക്കെ കേൾക്കാൻ കേട്ടു പഠിക്കാൻ കഴിയും അതുപോലെതന്നെ നഗര പ്രദേശങ്ങളാകുമ്പം എന്താ വണ്ടികൾ യാത്ര യാത്രാബുദ്ധിമുട്ട് സ്കൂളിലേക്ക് വരാൻ ഭയങ്കര ട്രാഫിക്ക് അങ്ങനെയൊക്കെയുള്ള സ്കൂൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് നഗരത്തിൽ നഗരപ്രദേശം ഗ്രാമ പ്രദേശങ്ങളിലാവുമ്പോൾ എന്താ നടന്നു അധികം തിരക്കില്ല അങ്ങനെ വണ്ടികൾക്ക് അധികം തിരക്കില്ല അതുകൊണ്ട് മെല്ലെ നമുക്ക് കൃത്യസമയത്ത് സ്കൂളിൽ എത്താനൊക്കെ കഴിയും

അങ്ങനെ നഗരപ്രദേശത്തിലും ഗ്രാമപ്രദേശത്തിലും അങ്ങനെയൊരു അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെയുണ്ട്